ഇപ്പം ഇപ്പം നോർമലായിട്ടുള്ള കാണപ്പെടുന്നൊരു കോമൺ ഡിസീസ് എന്നു പറയുന്നത് ഡയബെറ്റിക്സ് നമ്മളത് നോർമലായിട്ട് സാധാരണ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക എൻ്റെ വീട്ടിലും എൻ്റെ അച്ഛന് ഷുഗർ പേഷ്യന്റാണ് അപ്പോൾ അച്ഛനാണെങ്കിൽ വൈകിട്ട് നമ്മൾ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ റൈസൊക്കെ കഴിക്കുന്നത് കൂടുതലും എന്താ കാർബോഹൈഡ്രേറ്റും ഷുഗറുമൊക്കെ കൂടുതലാണ് അപ്പം അത് നമ്മുടെ ഡയബറ്റിസ് കൂടാൻ വേണ്ടീട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് നമ്മൾ വീറ്റായിട്ട് വീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫുഡൊക്കെ കഴിക്കുന്നത് ആ ഡയബറ്റിക്സിന് ഏറ്റവും വലിയ ഒരു ഒരു നമുക്ക് ട്രീറ്റ്മെന്റന്ന് പറയാൻ തന്നെ ഇപ്പം വൈകിട്ട് നമ്മൾ രാത്രിയിൽ തന്നെ നമ്മൾ ചപ്പാത്തിയോ അടയോ ഒക്കെ കഴിക്കുവാണെങ്കിൽ നമുക്കൊരു നല്ല ഹെൽത്തിയായിട്ടുള്ളൊരു ലൈഫ്സ്റ്റൈല് നമുക്ക് മെയിന്റയിൻ ചെയ്യാൻ പറ്റും പിന്നെ നോർമൽ എക്സർസൈസ് ആ രാവിലൊക്കെ എണീറ്റ് നടക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ പകുതിയായിട്ടുള്ള നമ്മുടെ ഈ ഡിസീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും നോർമലി നമ്മുടെ ബോഡി ഫിറ്റ് ഫിറ്റായിരിക്കും നല്ല ഫിറ്റ് ആൻഡ് ഹെൽത്തി ആയിരിക്കും നോർമലായിട്ടുള്ള നോർമൽ ഡയറ്റും നോർമലായിട്ടുള്ളൊരു എക്സർസൈസും ഹെൽത്തുവൊക്കെ മെയിന്റയിൻ ചെയ്യുവാണെങ്കിൽ തന്നെ പിന്നെ നമ്മളുടെ റുട്ടീനായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടിഷൻസൊക്കെ നമുക്ക് അതിൻ്റെ കണ്ടിഷൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്